ഹലോ ഇത് രാജുവിൻ്റെ അമ്മ അല്ലെ ഞാൻ അവൻ്റെ പ്രിൻസിപ്പാളാണ് അവനെക്കുറിച്ചിട്ട് ഒരുപാട് കംപ്ലെയിൻസ് വരുന്നുണ്ട് അവന് ക്ലാസിലെ കുട്ടികളുമായി വഴക്കിടുന്നുണ്ട് അതുപോലെ ക്ലാസ്സ് കട്ട് ചെയ്യുന്നുണ്ട് ആ അവന് എപ്പോഴും ഏതെങ്കിലും കുട്ടികളും ആയെങ്ങാണ്ട് എന്തേലും ഒക്കെ വഴക്കുണ്ടാക്കും അത് പിന്നെ അടിപിടി ആവും ഇന്നിപ്പോൾ ഒരു കുട്ടിൻ്റെ വഴക്കുണ്ടാക്കി അവൻ അടി അടിച്ചു അപ്പം തല ഒക്കെ പൊട്ടീട്ട് അവൻ്റെ പേരൻസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു സൊലൂഷൻ എന്തായാലും നമ്മൾ കണ്ടെ പറ്റുളളു

ആ അത് നമുക്ക് ചെയ്യാം എങ്കിലും അവനെ വീട്ടിൽ പറഞ്ഞ് എങ്ങാണ്ട് മനസ്സിലാക്കണം ഇനിയിപ്പോൾ വേറെ ആരെയെങ്കിലും ഫാമിലിയിലുള്ള ഗ്രാൻഡ് പേരൻസ് പേരൻസാരേലും ഉണ്ടോ ഗ്രാൻഡ് പെരൻസോ അങ്ങനെ ആ അവനി ക്ലാസ്സ് കട്ട് ചെയ്യണതെ ആ അതും ഭയങ്കര ഇഷ്യു ആണ് നമ്മളിവിടെ ക്ലാസ് എടുത്ത് കൊടുക്കുമ്പം എക്സാം ടൈംമിലതൊക്കെ പ്രശ്നാവുവല്ലൊ ആ ആ കുഴപ്പവില്ല നമുക്ക് എന്തേലും സൊലൂഷൻ ക കാണാം അവനെ വീട്ടിലൊക്കെ എങ്ങനെയാണ് പഠിക്കാൻ ആ അത്പോലെ പൈസയൊന്നും അവൻറ്റടുത്ത് കൊടുത്ത് അയക്കണ്ട അവൻ ഫ്രണ്ട്സുവായിട്ട് പുറത്ത് പോകാനുള്ള മെയിൻ കാരണം അങ്ങനെ പൈസ കൊടുക്കണത് കൊണ്ടാണ് അപ്പം അതൊന്നും കൊടുക്കണ്ട എന്നാൽ പിന്നെ നാളെ രാവിലെ സ്കൂളിലോട്ട് ഒന്ന് വരണം ആ ആ ഓക്കെ ഓക്കെ എന്നാൽ നാളെ രാവിലെ ഒരു പത്ത് മണീൻ്റെ ഉള്ളിൽ അവനെ കൂട്ടിയിട്ട് വരണം ഓക്കെ ഓക്കെ